ഞാൻ ഈ അടുത്തിടെ ഓൺലൈൻ വഴി ഒരു വാച്ച് മേടിക്കപ്പെട്ടു അത് നല്ല രീതിയിലുള്ളൊരു വാച്ചായിരുന്നു അത് എല്ലാം കൊണ്ടും കൊള്ളാം അതിൻ്റെ ചെയിൻ ഗോൾഡൻ കളറും മറ്റുള്ള മോഡൽ ഉള്ള പോലത്തൊരു വാച്ചായിരുന്നത് കറക്റ്റായിട്ടുള്ള സമയങ്ങളും കറക്റ്റായിട്ടുള്ള മിനിറ്റുകളും ഒക്കെ ഉള്ളൊരു വാച്ച് നല്ല രീതിയിൽ ഓടുന്നൊരു വാച്ചായിരുന്നത് ആ വാച്ചിൻ്റെ രൂപകൽപ്പന അതായത് ഡിസൈൻ അതും നല്ല രീതിയിലുള്ള ഒരു ഡിസൈനായിരുന്നു കാണാൻ കൊള്ളുന്നതിൽ ഏറ്റവും നല്ല രസമുള്ള ഒരു ഡിസൈൻ അത് ഇന്നേ വരെയും ഞാൻ ഓൺലൈനിൽ ആ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല അതു കണ്ടത് കൊണ്ടാണ് ഞാൻ അതു വാങ്ങാൻ തീരുമാനിച്ചത് ആ സ്മാർട്ട് വാച്ചിൻ്റെ രൂപകൽപ്പന ഇതു പോലെ ഒരു ഒരിടത്തും കണ്ടിട്ടില്ല നിങ്ങൾക്കും ഇത് ഈ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഈ വാച്ചിൻ്റെ മോഡൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് വാങ്ങാവുന്നതാണ് ഫുൾ ഗ്യാരണ്ടി മൂന്ന് വർഷത്തെ ഗ്യാരൻറ്റി കൂടി അവ ആ വാച്ചിന് കൊടുക്കുന്നുണ്ട് അത്രയും നല്ലൊരു വാച്ചാണത് അതു വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ കെട്ടിക്കൊണ്ടു നടന്നാൽ മറ്റുള്ളവരും അതുപോലെ ചോദിക്കും ഈ വാച്ച് എവിടെ നിന്നു കിട്ടിയതാണെന്ന് അത്രക്കും മോഡലേഷൻ ഉള്ള ഒരു വാച്ചാണത് അത് എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും ആ വാച്ചിൻ്റെ പ്രകൃതി എടുത്ത് കാണിക്കുന്നതായിരിക്കും